ഇപ്പോൾ പ്രാദേശികമായ സ്ഥലങ്ങളിൽ ഇപ്പോഴും വ്യാപാരവും വാണിജ്യവും നടത്തുക അവിടുത്തെ ഭാഷയിലാണ് ഇപ്പോഴും പ്രാദേശിക ഭാഷയിൽത്തന്നെ നടക്കത്തുള്ളു നടക്കത്തത്തുള്ളു അടുത്തത് മലയാളികളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മലയാള ഭാഷയാണ് ഓരോ ഇവിടുത്തെ വ്യാപാരത്തിനാണെങ്കിലും വാണിജ്യത്തിനാണെങ്കിലും ഉപയോഗിക്കുക കാരണം അതാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ പരസ്പരം അവരുടെ ഭാഷ വിനിയോഗത്തിന് അതത് മലയാളഭാഷയാണ് ഏറ്റവും ഉചിതമായ ഭാഷ അപ്പം ഓരോ സ്ഥലങ്ങളിലും അത് ഇതിത് ഇത് ഓരോ എന്താ പറയുക പ്രാദേശിക സ്ഥലങ്ങളിലും ഓരോ വസ്തുവിനും പേര് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടെ പ്രായോഗിക ഭാഷയ്ക്ക് വ്യാത്യാസം ഉണ്ടാകും ഒരുപക്ഷെ തൃശ്ശൂർ പറയുന്ന ഓരോ സാധനത്തിന് പറയുന്ന പേരായിരിക്കത്തില്ല കോട്ടയത്ത് പറയുക അതുപോലെ തിരുവനന്തപുരത്ത് പറയുക വേറെ ചിലപ്പോൾ ഒരേ ഒരേ ഒരു സാധനം തന്നെ ആയിരിക്കും ഉദ്ദേശിച്ച് പക്ഷേ അതിന് മൂന്ന് സ്ഥലങ്ങളിലും മൂന്ന് തരത്തിലുള്ള വ്യത്യസ്തമായ പേരുകളായിരിക്കും ഉപയോഗിക്കപ്പെടുന്നത് അപ്പം തീർച്ചയായും തീർച്ചയായും അപ്പം അതത് സ്ഥലങ്ങളിലെ ഭാഷാപ്രയോഗങ്ങളാണ് എപ്പോഴും ഉപയോഗിക്കുക ഉപയോഗിക്കപ്പെടുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയായി നടക്കാറുള്ള ഏറ്റവും ഉചിതമായ ഉപയോഗം അതുപോലെതന്നെ മലയാളത്തിൽ ആ മലയാളത്തിലുള്ള ബ്രാൻഡ് നെയിം ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ആകർഷണീയമായി തോന്നാം അതുപോലെതന്നെ പരസ്യങ്ങൾ അതത് മലയാളഭാഷാ പത്രങ്ങളിലാണെങ്കിലും മലയാളം മീഡിയത്തിനാണെങ്കിലും ടീ വിയിൽ ആണെങ്കിലും പത്രത്തിലാണെങ്കിലും നോട്ടീസ് പോസ്റ്ററ് ഇവിടെയെല്ലാം ഇവിടെയെല്ലാം അത് മലയാള ഭാഷയാണ് ഉപയോഗിക്കുക അതുപോലെതന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ മലയാള ഭാഷയിൽ ഉപയോഗിക്കുമ്പം അതത് ജന അതത് പ്രാദേശികമായ സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കപ്പെടാൻ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേ എത്തി എത്തപ്പെടാൻ സാധിക്കുന്നു അതുപോലെതന്നെ സോഷ്യൽ മീഡിയയിലെ റീൽസ് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇതിലെല്ലാം ഇത്തരം മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതത് സ്ഥലങ്ങളിലെ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്രയും വേഗം എത്തിപ്പെടാൻ സാധിക്കും അതുകൊണ്ട് അതുപോലെ ഇപ്പം മലയാള ഭാഷയോടുള്ള ഉപയോഗം ഓൺലൈൻ പ്രൊമോഷൻസ് കൂടുതൽ ഉപയോഗപ്പെടുത്തി നമ്മൾക്ക് ഇതിനെ കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം എപ്പോഴും ഒരു പ്രാദേശികമായ സ്ഥലത്ത് നടത്തപ്പെടുന്ന വ്യാപാരവും വ്യാണിജ്യവുമായുള്ള കാര്യങ്ങൾ എപ്പോഴും അതത് ഭാഷ അതായത് നമ്മൾ കേരളത്തിൽ നമ്മുടെ നാടുകളിൽ നടക്കുമ്പോൾ ഇവിടുത്തെ അവിടുത്തെ ഭാഷ പ്രാദേശികഭാഷയായ മലയാളം ഭാഷ ഉപയോഗിക്കുമ്പോഴത്തേക്കാണ് അതിന് ഏറ്റവും വിജയം ഉണ്ടാകാനായിട്ടും സ്വീകാര്യമുണ്ടാകുക അതുപോലെതന്നെ പരസ്യങ്ങളിലെപ്പോഴും മലയാളം പാട്ടുകൾക്ക് അതിന് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും കൂടുതൽ ജനങ്ങൾ കൂടുതൽ സ്വീകാര്യത ലഭിക്കും അപ്പം തീർച്ചയായും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുക മലയാള ഭാഷയാണ് പ്രാദേശികമായ ഭാഷയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ഏറ്റവും ഉചിതമായ ഭാഷ